ഇപ്പോൾ നമുക്ക് അതായത് എൻ്റെ സെക്കൻഡ് പ്രൊഡക്റ്റ് ഫേസ് ക്രീം ആണ് അതായത് ഇപ്പന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ക്രീമിനെ കുറിച്ച് ഒരുപാട് പിന്നെ എന്താന്ന് വച്ചിട്ടുണ്ടെങ്കില് ഡിസ്അഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ടൈമ് ആണിത് കാരണന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഒരു ഫേസ് ക്രീമും നമ്മുടെ കരളിൻ്റെ ഇതൊക്കെ ബാധിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ന്യൂസിലും കാര്യങ്ങളിലും നമ്മള് മീഡിയാസിലൊക്കെ നമ്മള് കാണാറുണ്ട് അപ്പന്ന് വെച്ചിട്ടുണ്ടെങ്കി മെയിനായിട്ട് ഇപ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കി പെൺകുട്ടികളാണ് കൂടുതലായിട്ടും ഇപ്പ ചെക്കന്മാര് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നു ഇല്ലാന്ന് പറയുന്നില്ല പക്ഷേ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് പെൺകുട്ടികളാണ് അപ്പ പെൺകുട്ടികൾക്കാണ് കൂടുതലായിട്ടും അസു ഇങ്ങനെ ഫെയ്സ് ക്രീമ് കാര്യങ്ങളൊക്കെ ഇട്ടെന്നെ അസുഖം അതിൻ്റെ സൈഡ് എഫക്ടും ആദ്യമൊക്കെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം നല്ല റേറ്റും ആയിരിക്കും ഈ വെളുക്കുന്ന ക്രീമ് എന്നൊക്കെ പറയുന്നതിന് പത്തറുന്നൂറ് എണ്ണൂറ് രൂപയൊക്കെ ആയിരിക്കും അപ്പൊന്ന് അത് തേച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം നീറുകയും കാര്യങ്ങളൊക്കെ വരും പിന്നെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ തേക്കാണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മള് കറുത്തും പോകും അപ്പോൾ നമ്മള് എങ്ങനെയാണെങ്കിലും എങ്ങനേലും പൈസ ഉണ്ടാക്കീട്ട് മേടിക്കും അതാണ് കമ്പനിയുടെ ഒരു ട്രിക്ക് അപ്പം നമ്മൾ അത് അറിയാണ്ട് മേടിച്ചിട്ട് പിന്നെ നമ്മളത് യൂസ് ചെയ്യാൻ തൊടങ്ങും പിന്നെ യൂസ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് അതായത് ചർമ്മത്തിന് ചുളിവ് കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങും നമ്മള് നല്ലോണം നിറമൊക്കെ വെക്കുമായിരിക്കും പക്ഷേ കൊറച്ചു കാലം കഴിയുമ്പോൾ ചർമ്മത്തിന് ചുളിവ് കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങും പിന്നെ ഓരോന്നോരോന്ന് സൈഡ് എഫക്ട് കാര്യങ്ങൾ ഓരോന്നോരോന്ന് വരാൻ തുടങ്ങും അപ്പം നമ്മള് ചിന്തിച്ചിട്ട് കാര്യല്ല അപ്പം മെയിനായിട്ട് ഫെയ്സ്ക്രീമ് കാര്യങ്ങളൊക്കെ നമ്മള് യൂസ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്കത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ മുഖത്തിനുമൊക്കെ നല്ലതാണ്